മരുന്നുകളെന്നു പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് വീട്ടിൽ ശ്വാസം മുട്ടലിന് ഹസ്ബെൻഡിനും മകനും ഒക്കെ ശ്വാസം മുട്ടലിൻ്റെ അസുഖമുള്ളതാണ് അപ്പം നമുക്ക് വരുമാനത്തിൻ്റെ ഒരു കാൽഭാഗം എന്നല്ല അരഭാഗമെങ്കിലും നമ്മൾ മരുന്നിനുവേണ്ടിയിട്ടാണ് മാറ്റിവെക്കാറുണ്ടായിരുന്നു വിലകൂടിയ മരുന്നുകളാണ് കൊറക്കോട്ട ഫോർട്ടെന്നുപറയുന്ന മരുന്നാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം രാവിലെയും വൈകീട്ടും ഒക്കെ അസുഖം വരുമ്പം വിളിച്ചുപറയുമ്പം തന്നെ അതിനകത്ത് ഏകദേശം ഒരു ചെറിയ ടിന്നിന് നാന്നൂറ്റി അറുപത്തഞ്ച് രൂപ വിലയാണ്

മകനുംകൂടെ ആകുമ്പോഴത്തേക്കും ഒരുമാസം നാലെണ്ണം മേടിക്കേണ്ടിവരും അപ്പം പിന്നെ വരുമാനത്തിൻ്റെ പകുതിയോളം നമുക്ക് ഇതിനുവേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടിവരും പിന്നെ ധർമ്മാശുപത്രിയിൽ നിന്ന് നമുക്ക് മരുന്ന് കിട്ടാറുണ്ട് ആരോഗ്യകേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത മാത്രം വളരെ അധികം ബുദ്ധിമുട്ടാണ് കരുവാറ്റ എന്നുപറയുന്ന ഒരു ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്നുപറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്കിവിടെ യാത്രയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ കടത്തിറങ്ങിവേണം വലിയ ആറാണ് ആറാണ് നമ്മുടെ വാതിൽ പുത്തനാർ എന്നുപറയും കുറിച്ചിക്കൽ പള്ളിയുടെ സമീപത്താണ് അപ്പം ഞങ്ങൾ പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് യാത്ര വള്ളത്തേൽ കയറി അക്കരെ ഇറങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ ഹൈവേ കാണണമെന്നുണ്ടെങ്കിൽ ഓട്ടോയിലാണ് പോകുന്നതെങ്കിൽ തൊണ്ണൂറ് രൂപ കൊടുക്കണം റ്റി വി ജംഗ്ഷൻ എന്നുപറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങണം അവിടെ ഒരു റ്റി വി ഹോസ്പിറ്റൽ ഉണ്ട് അവിടം വരെ നമ്മൾ ചെല്ലണമെങ്കിൽ തന്നെ നമുക്ക് അതിന് വളരെ നടക്കാൻ ആകുന്ന നമ്മൾ കാലിനൊക്കെ സുഖമില്ലാത്തതാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരോഗ്യകേന്ദ്രത്തിലേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതുകാരണം അതിനും വേണം കുറെ പണച്ചിലവുണ്ട് പിന്നെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അത് ഞങ്ങൾക്ക് യാത്രക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതിനുവേണ്ടിയിട്ട് നമുക്ക് പോകണമെങ്കിൽ ധർമ്മാശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാൻ പോകുന്ന ആ വണ്ടിക്കൂലികൊണ്ട് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കേറാമെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഉപജീവനമാർഗ്ഗത്തിൻ്റെ പകുതിയും നമ്മൾ മരുന്നിനുവേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത് സൗജന്യമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഹരിപ്പാട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും പക്ഷെ അതിൻ്റെ ഇരട്ടി നമുക്ക് വണ്ടിക്കൂലിയായിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് അതിൻേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ഈ കരുവാറ്റ പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ വരാണമെന്ന് ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ കുറേ പണം ഞങ്ങൾക്ക് ആ വണ്ടിക്കൂലിയിൽ നിന്നും മാറ്റിവെയ്ക്കാം ടു വീലർ ഉള്ളവരാണെങ്കിൽ അതിൽ പോകും നമുക്ക് ബസ് ടു വീലർ ഇല്ലാത്തവർ ആണ് നടന്നുപോവേണ്ട അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ചുദൂരം പോയാൽ വണ്ടാനം ഹോസ്പിറ്റലാണ് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണ് വണ്ടാനം ഹോസ്പിറ്റൽ അവിടേയും പോയാൽ നമുക്ക് മരുന്നുകളൊക്കെ കിട്ടും പക്ഷെ ഈ വില കൂടിയ ഫോറകോട്ട് ഫോർട്ടിൻ ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷകൾ വെച്ചതാണ് ആരോഗ്യകേന്ദ്രങ്ങളിൽ പല പ്രാവശ്യം അപേക്ഷകൾ വെച്ചതാണ് ഞങ്ങൾക്ക് ഈ ഒരു മരുന്ന് വാങ്ങിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്നുപറഞ്ഞുകൊണ്ട് പക്ഷേ ഇത്രയും വിലകുടിയതായതുകൊണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഈ മരുന്ന് എടുത്തുവെയ്ക്കാറുമില്ല നമുക്ക് കിട്ടാറും ഇല്ല അപ്പം അത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജീവിതമാർഗ്ഗം നമ്മൾ മരുന്നിന്നുവേണ്ടിയിട്ട് കുറേയൊക്ക മാറ്റിവെയ്ക്കുന്നത് പിന്നെ ഈ മരുന്ന് ഈ തണുപ്പ് ആറിൻ്റെ തീരത്ത് ആയതുകാരണം മഴവെള്ളം കയറി ആറൊക്കെ കവിഞ്ഞൊഴുകി പറമ്പിലൊക്കെ കേറി വരുമ്പോൾ തണുപ്പ് അടിക്കുമ്പോഴത്തേക്ക് ഈ ശ്വാസം മുട്ടുലൊക്കെ അസുഖങ്ങളും കാലിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടും അപ്പം നമുക്കും അതുകൊണ്ട് മരുന്ന് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല താങ്ങാവുന്ന വിലയൊന്നുമല്ല നമ്മുടെ വരുമാനത്തിൻ്റെ പകുതി നമ്മൾ അതിനുവേണ്ടിയിട്ട് കൊടുക്കുന്നത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വില കൂടിയ മരുന്നുകൾ അല്ലാതെയുളള ചെറിയ ചെറിയ മരുന്നുകളൊക്കെ നമുക്ക് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അല്ലാതെയുള്ള മരുന്നുകളൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറില്ല അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ